ആ അപ്പം നമുക്ക് ഓഫറിലാണ് വരുന്നത് എങ്കിൽ എത്ര രൂപയ്ക്ക് കിട്ടും എത്ര ശതമാനം ഓഫർ വരുന്നുണ്ട് ആ നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ അ വാങ്ങിക്കുന്നത് കൊണ്ട് ഫ്രീ ആയിട്ടാണോ ഡെലിവറി വരുന്നത് അതോ എക്സ്ട്രാ കാശു വല്ലതും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ

ഓ അങ്ങനെ ചെയ്യണം അല്ലേ

ഓ ഓക്കെ താങ്ക്യൂ